മാധ്യമങ്ങൾ മുഖേനയാണ് നമ്മൾ രാജ്യത്തെ കാര്യങ്ങളെല്ലാം അറിയുന്നത് ഇന്നിപ്പോള് രാജ്യത്തിൻ്റെ രാജ്യത്ത് നടക്കുന്ന അഴിമതികളാണെങ്കിലും നമ്മളിപ്പോള് കരുവന്നൂർ ബാങ്ക് പോലുള്ള ബാങ്കിൽ നടന്ന കൊള്ളയൊക്കെ നമ്മൾ മാധ്യമങ്ങളിലൂടെയാണ് അറിഞ്ഞത് ഇപ്പോള് ടി വി പത്രം ഓൺലൈൻ മാധ്യമങ്ങള് അവയിലൂടെ ഇന്ന് രാജ്യത്തെ എല്ലാ കാര്യങ്ങളും നമ്മള് അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കാരണം അതുകൊണ്ട് മാധ്യമങ്ങൾക്ക് വളരെ പ്രാധാന്യം ഉണ്ട് ഇപ്പോള്ത്തന്നെ ഈ അടുത്തകാലത്ത് കൊല്ലത്ത് ഓഫീസിലിരുന്ന് ടിക്ടോക് പരിപാടി നടത്തി ആരും അറിഞ്ഞില്ല മാധ്യമങ്ങൾ അത് ക പിടിച്ച് കാണിച്ചു കൊണ്ടാണ് ജനം അതറിഞ്ഞത് അങ്ങനെ ഉള്ള ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ മാധ്യമങ്ങൾ വഴി നമുക്ക് അറിയാൻ സാധിക്കും അതുപോലെതന്നെ രാജ്യത്ത് പുതുതായിട്ട് എന്തെങ്കിലും നല്ല പദ്ധതികളൊക്കെ വന്നാൽ സാധാരണ ജനങ്ങളെല്ലാം മാധ്യമങ്ങളിൽ കൂടിയാണ് അറിയുന്നത് അല്ലാതെ നേരിട്ട് നമ്മൾക്ക് ഒന്നും അറിയാൻ പറ്റത്തില്ലല്ലോ മാധ്യമം രാജ്യ പുരോഗതിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണെന്ന് ഒന്നാണ്